ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ ജനനദിനത്തോടനുബന്ധിച്ച് അവള്ക്ക് ഒരു ഗ്രീറ്റിങ്ങ് കാർഡും അതുപോലെതന്നെ ഒരു ബോക്സ് ചോക്ക്ലേറ്റ് ബോക്സ് അറേഞ്ച് ചെയ്തും ക്രാഫ്റ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട് അവള്ക്കത് വളരെ സന്തോഷമായി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ബർത്ത് ഡേക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഇതുപോലെതന്നെ അദ്ദേഹം ഒരു ഡ്രോയിങ്ങ് ഡ്രോയിങ്ങ് അതുപോലെതന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോ വച്ചൊരു ഫ്രെയിം അതിനകത്ത് ക്രാഫ്റ്റ് പോലെ ഫ്ലവേഴ്സൊക്കെ പേപ്പർ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വച്ച് അതെനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ആ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ പോലെനിക്കൊരു ജന്മ വാസന എന്ന് പറയുന്ന പോലെ എനിക്ക് ക്രാഫ്റ്റ് വളരെ ഇഷ്ടമാണ് ഞാനത് ചെയ്യാറുമുണ്ട് അതേപ്പറ്റി കൂടുതലറിയാനും ശ്രമിക്കാറുണ്ട് പുതിയത് പുതിയ വീഡിയോസ് ഓരോരുത്തര് യുട്യൂബിലൊക്കെ അപ്പ് ലോഡ് ചെയ്യുമ്പോള് അത് വാച്ച് ചെയ്യാറുണ്ട് അതുപോലെ ചെയ്തുനോക്കാറുമുണ്ട്